എനിക്ക് എറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇഷ്ടമുളള ഒരു ടി വി ഷോ ആണ് ടോപ്പ് സിംഗർ ഞാനത് സ്ഥിരമായി കാണാറുണ്ട് ഒരു ദിവസം പോലും ആ ടി വി ഷോ ഞാൻ മിസ് ചെയ്യാറില്ല അത് എന്തുകൊണ്ട് ആണ് ഈ ടി വി ഷോ എനിക്ക് ഇഷ്ടമായത് എന്തെന്നാൽ പാട്ടുകളൊത്തിരി ആസ്വദിക്കുന്ന എനിക്ക് ഈ ടി വി ഷോ വളരെയധികം ഇഷ്ടമാണ് കുട്ടികളുടെ ഓരോ പാട്ടുകളും ആസ്വദിക്കാനും കണ്ടു കൊണ്ടിരിക്കാൻ തന്നെ വളരെയേറെ ഇഷ്ടമാണ് അതുമാത്രമല്ല അതിലെനിക്ക് പ്രിയപ്പെട്ട ഒരു കുട്ടിയുടെ പാട്ട് അത് ഞാൻ മുടങ്ങാതെ കാണാറുണ്ട് ഫ്രീ ടൈമുകളിലായാലും എപ്പോഴും എനിക്ക് ഈ പ്രോഗ്രാം ഞാൻ യൂട്യൂബ് വഴി തുടങ്ങിയ ഫോണിലൂടെ ആയാലും ഞാനത് ആസ്വദിക്കാറുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാം കൂടിയാണിത്